ഈ വിഷയത്തിൽ പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എനിക്ക് ഒന്ന് ഇന്നത്തെ മിക്സിയുടെ ഉപയോഗം മിക്സി ഉണ്ട് വാഷിങ്ങ് മെഷീൻ ഉണ്ട് അങ്ങനെ പല ഉപകരണങ്ങളും വീട്ടിലുണ്ട് അത് അടുക്കള ഉപകരണങ്ങൾ എന്ന് പറയുന്ന മിക്സി തന്നെ ഒന്നമത്തെ സാധനം പിന്നെ ഗ്രൈൻഡർ ഗ്യാസ് ഇതെല്ലാം നമുക്ക് ഇന്ന് എന്ത് മാത്രം ഉപകാരം ഉപകാരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പത്തെ ജീവിതാനുഭവം ഉള്ളവരോട് ചോദിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ ഞാൻ അതിൻ്റെ ഒരു ഉത്തമ ഉദ്ദാഹരണമാണ് മിക്സി ഇല്ലാത്തത് കൊണ്ട് കല്ലിൽ അരച്ച് ഒരുപാട് സമയം കളയുന്നുണ്ട് അധ്വാനം പിന്നെ കല്ലിൽ അരയ്ക്കുമ്പോൾ അതിനകത്തൊരു ഗുണമുണ്ട് നമ്മുടെ കല്ലിലെ മിനറൽസ് നമ്മുടെ ഉള്ളിൽ ചെല്ലും അതൊരു നല്ല വശം പിന്നെ പൊടിച്ചുകൊണ്ടിരുന്നത് ഉരലിനകത്ത് പൊടിക്കുന്ന എത്രയോ മ മണിക്കൂറുകൾ പൊടിച്ചാലാണ് നമുക്ക് ഒരു കിലോ അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിച്ചാൽ പൊടിച്ചെടുക്കാൻ പറ്റിയിരുന്നത് എത്ര അധ്വാനം എത്ര പേരുടെ അധ്വാനം ഇതൊക്കെ ഇപ്പം മിക്സി ഉള്ളത് കൊണ്ട് പെട്ടെ ന്ന് അഞ്ച് മിനുറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ശരിയാക്കി കിട്ടും അതുപോലെ ഗ്രൈൻഡർ ദോശമാവ് ആട്ടുകല്ലിൽ ആട്ടി ആട്ടി ആട്ടി എത്ര മണിക്കൂർ ആട്ടിയാലാണ് നമുക്ക് ദോശമാവ് ഒക്കെ ഒന്ന് ആക്കി കിട്ടുന്നത് അതിപ്പം ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം അതുപോലെ ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് ഇലക്ട്രോണിക്ക് ആണോ ഇലക്ട്രിക്കൽ അല്ല ഗ്യാസ് സ്റ്റവ് ഇലക്ട്രിക്കൽ അല്ല എങ്കിൽ പോലും ഗ്യാ അടുപ്പിൽ വിറക് വെച്ച് ഊതി ത മഴയുള്ള സമയത്തും മറ്റുമൊക്കെ ഊതി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതൊക്കെ ഇപ്പോൾ എത്ര ഈസി ആണ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്യാസ് കത്തും അതൊരു ഭയങ്കര ആ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല അത് വു നമ്മൾ മാറിയാൽ നമ്മുടെ കൂടെ തീയും കെട്ട് പോകും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വാഷിങ്ങ് മെഷീൻ തുണി കഴുകി എത്രയോ ദൂരെ തോട്ടിലോ ആറ്റിലോ കിണറ്റിലോ ഒക്കെ കൊണ്ടുപോയി ആണ് ആൾക്കാർ തുണി കഴുകിക്കൊണ്ടിരുന്നത് ഇപ്പം വാഷിങ്ങ് മെഷീൻ ഉള്ളതുകൊണ്ട് അതെല്ലാം എത്രയോ എളുപ്പമാണ് ഇന്നത്തെ ലേഡീസിനെ സംബന്ധിച്ചിട്ട് തന്നെ ഭയങ്കര ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പക്ഷേ അതിനകത്തൊരു നെഗറ്റീവ് ഉള്ളത് ആകെപ്പാടെ നമ്മൾ അധ്വാനിക്കുന്നില്ല വിയർക്കുന്നില്ല വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിൽ പോവേണ്ട ഒരു വിസർജ്യ വസ്തുവാണ് അതിനകത്തൂടെ നമ്മുടെ ഒരുപാട് ശരീരത്തിലെ മാലിന്യങ്ങൾ ഒഴ് പോവുന്നതാണ് പക്ഷേ അത് നമുക്ക് ആ ഒരൊറ്റ നെഗറ്റീവിറ്റിയേ ഉള്ളൂ അതിന് അധ്വാനിക്കുന്നില്ല എന്നാലും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ എന്ത് ജോലിക്കോ പോവുന്നവർ അകട്ടെ അത് ഭയങ്കര ഉപകാരപ്രദമാണ് ഇപ്പം വെളുപ്പിന് എട്ട് മണി സാധാരണ കുടുംബത്തിൽ രാവിലെ എട്ട് മണിയാവുമ്പൊഴത്തേന് എല്ലാ കാര്യങ്ങളും റെഡി ആകണം അപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകുന്നവരാണ് അപ്പം കുക്ക് ചെയ്തുകൊണ്ടും അലക്കിക്കൊണ്ടും അല്ലെങ്കിൽ അരി ആട്ടികൊണ്ടും കല്ലിൽ അരച്ചുകൊണ്ടും ഒന്നും സമയം കളയാനില്ല അപ്പം അത് അത് വെച്ച് നോക്കുമ്പം അത് ഭയങ്കര ഉപകാരപ്രദമായ കാര്യങ്ങളാണ്